ഇപ്പോൾ മനുഷ്യർ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഓർമ്മകളിലേക്ക് ഒക്കെ പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പണ്ട് എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ ഓണം വിഷു ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആഘോഷിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ അത് എന്തായാലും നമ്മുടെ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്സ് ചെയ്യും അപ്പോൾ നമ്മുടെ അമ്മയുടെ കൂടെയും നമ്മുടെ പൂർവികരുടെ കൂടെ ഒക്കെ നമ്മൾ ആഘോഷിക്കുന്നു എന്ന് പറഞ്ഞാൽ അടിപൊളിയാണ് ഇപ്പോൾ അതിലേക്ക് ഒക്കെ നമ്മൾ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പല രീതിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളികൾ അല്ല പൊതുവെ മനുഷ്യർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെത്തന്നെയാണ് കാരണമെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുഷ്യർ എപ്പോഴും കാത്തു സൂക്ഷിക്കുന്ന ഒന്നാണ് ഈ ഓർമ്മകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ അവർ ഇടയ്ക്കിടയ്ക്ക് ഇത് ഇരുന്ന് ഇങ്ങനെ അയവിറക്കുക അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യും അപ്പോൾ അതൊക്കെ അവരുടെ മെയിനായിട്ടുള്ള ഓർമ്മകളാണ് അപ്പോൾ ഇതൊക്കെ ഇതിലേക്കൊക്കെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർക്ക് ഇപ്പോൾ ചെറിയ കുട്ടിക്കാലം ഒക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ഗോലി കളിക്കാൻ പോകുന്നതും ക്രിക്കറ്റ് കളിക്കാൻ പോകുന്നതും ഫുട്ബോൾ കളിക്കാൻ പോകുന്നതും ഇതൊക്കെ പിള്ളേരൊക്കെ ഏതു നേരവും ഇങ്ങനെ കളിക്കാൻ പോകുന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചിരിക്കുന്നവരാണ് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊക്കെ അത് ഭയങ്കര ഒരു ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അതൊക്കെ അതിലൊക്കെ തിരിച്ചു പോകാൻ വേണ്ടിയിട്ട് പല ആൾക്കാരും ആഗ്രഹിക്കുന്നെങ്കിലും ഉണ്ട്